മോളെ ഞാനെൻ്റെ വാ വായ്പ്പേടപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പോള് അതിന് വേണ്ടി ഡീജീ ലോക്കറുവഴി ഞാനെൻ്റെ പാൻകാടയച്ച് തരാമായിരുന്നെ ഇനിയിപ്പോള് അതിന് വേറെയെന്തെങ്കിലും ഫോർമാറ്റോ കാര്യമെന്തെങ്കിലുമുണ്ടോ നിങ്ങള്ക്ക് വേറെന്തേലും സാ ആധാർക്കാഡൊ അതുപോലത്തെ എന്തേലും കാര്യങ്ങളെന്തേലും വേണോ ഈ വായ്പ കിട്ടാനായിട്ടൊത്തിരി സമയം പിടിക്കുമോ അതെങ്ങനെയാ പെട്ടെന്ന് തന്നെ കിട്ടുമോ അത് നിങ്ങള്ക്ക് അതിനകത്ത് വേറെയെന്തേലും കാര്യങ്ങളൊക്കെയുണ്ടോ എന്തേലൊക്കെയുണ്ടെങ്കിലേ എന്നോടൊന്ന് പറയണെ എന്നെ വിളിച്ച് ഒന്നു പറയണെ യെ വ വായ്പയിതെനിക്കാ പൈസ അത്യാവശ്യമുണ്ടായിരുന്നെ അപ്പോള് പെട്ടെന്ന് വായ്പ കിട്ടുവാരുന്നെ നല്ലതാരുന്നു അപ്പോള് അതിനെന്തേലുവൊരു ഇതുണ്ടെങ്കിലല്ലേ നിന്നേക്കൊണ്ട് പറ്റുവാണേലൊന്ന് പെട്ടെന്നൈൻ്റെ കാര്യങ്ങളും പേപ്പറുമൊക്കെയൊന്ന് നീക്കാനായിട്ട് നോക്കണം അപ്പോള് അതുപോലെ വേറെന്തെങ്കിലും വിശദാ അതെന്തേലും കാര്യങ്ങളോ വിശദാംശങ്ങളോ എന്തേലും ആവശ്യമായിട്ടുണ്ടെങ്കില് എന്നെ വിളിക്കണേ എന്നെ ഒന്ന് വിളിച്ച് പറയണം എന്നാലെ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഫോർമാറ്റൊ എന്തേലുമുണ്ടോ ഉണ്ടെങ്കില് നീ നോക്കിയിട്ട് എൻ്റെ അപേക്ഷയില് നോക്കിയിട്ട് അതിനാത്ത് വേറെന്തേലും കാര്യമുണ്ടെങ്കിലെ പറയണം ഞാനാ ഡീജീ ലോക്കര് വഴി പാൻ കാഡ് അയച്ച് തരാവെ പാൻ കാഡിൻ്റെത് നോക്കിയിട്ട് വേറെയെന്തേലും കാര്യങ്ങളെന്തേലും വേണമെങ്കിലേ ഒന്ന് നീയൊന്ന് പറയണെ എന്നെയൊന്ന് വിളിച്ച് പറയണം എനിക്ക് പൈസയ്ക്ക് അത്യാവശ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്നീ വായ്പ്പയുടെ കാര്യമൊക്കെയൊന്ന് നോക്കണെ കേട്ടൊ എന്നാല് ശരിയെന്നാല്